ആ എന്തായെ സജി

ആ പറ ഇവിടോ സത്യ ചത്തിട്ട് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു

ടീ ടീ തോമസ്സ് താനുവേലി ആ മൂന്ന് പെണ്ണും പെൺപിള്ളേർ മൂന്ന് പിന്നെ ഞാനും പുള്ളിയും മാത്രം അതെല്ലാം കേട്ട് കെട്ടിച്ച് വിട്ടില്ലേ അവരെല്ലാം ആയിട്ട് വിവാഹം കഴിഞ്ഞാ

ആ മൂത്തവൾക്ക് ഒരാൾ രണ്ടാമത്തവൾക്ക് രണ്ട് ഇളയവൾക്ക് രണ്ട് ആ ആന്ന് ഒരു കുഴപ്പവും ഇല്ല ഉം എനിക്ക് അമ്പത്തെട്ട് ഭർത്താവിന് അറുപത്തിനാല് ആ ആ പെൻഷൻ നമ്മുടെ ഇത് ഞങ്ങളുടെ മറ്റേ ഞങ്ങളുടെ പിന്നെ കെട്ടിടനിർമാണത്തിന്റെ കിട്ടുന്നുണ്ട്

ഇല്ലില്ല എന്റ ആയില്ല അറുപത് ആയില്ല

ഓ അങ്ങനെ നമുക്കൊരു ഹോബിയൊന്നും ഇല്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഉം ആ ഇല്ല അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലടാ ഒന്നിനോടും എന്താപറയുന്നത് നമ്മൾ എല്ലാംകൂടെ അഡ്ജെസ്റ്റ് ചെയ്ത് ജീവിക്കുക അത്രേയുള്ളൂ ആ ഇല്ല അതിപ്പോൾ ഒത്തിരി നാളായില്ലേ പണ്ട് എങ്ങാണ്ട് നേരത്തേയെങ്ങാണ്ട് വന്ന് എടുത്തതേയുള്ളൂ പിന്നെ അത് എന്നായിരുന്നു ഇപ്പം ഓർക്കുന്നില്ല ഒത്തിരി നാളായി എടുത്തിട്ട് ആണ് തിരുവല്ല നഗരസഭയിലാ വാർഡ് നമ്മുടെ പതിനെട്ട്

ഇപ്പം നമ്മുടെ ഇത് ഓ കോൺഗ്രസ്സ്

ആ ഓക്കേ